ഹലോ ആ പിന്നെ കുറച്ച് മധുര പലഹാരം വേണമായിരുന്നു പിന്നെ ലഡു നെയ്യപ്പം ഉണ്ണിയപ്പം പിന്നെ തട്ടപ്പം അതൊക്കെ വേണമായിരുന്നു

പിന്നെ ഏതാ വേണ്ടത് എന്നുപറഞ്ഞാൽ പിന്നെ അത് ഉണ്ണിയപ്പം ഒക്കെ നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതാണോ ആ എന്നാൽ ഉണ്ണിയപ്പം ആ ആ ഉണ്ണിയപ്പം നെയ്യപ്പം വട്ടയപ്പം ഒക്കെ ഒന്ന് പറഞ്ഞ് തരുമോ ആ മൂന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വീട് ആ ആ ഉം ഉം

ഉം ഉം ഉം ഉം ആ ആ ആ ആ ഉം ഉം ഉം ഉം പിന്നെ നെയ്യപ്പം

ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം ആ ഉം ഉം ഉം ഉം

ഉം ഉം

ഉം ഉം ഉം അങ്ങനെ തീർക്കാം പിന്നെ വട്ടയപ്പമോ വട്ടയപ്പം

ആ ഉണ്ണിയപ്പം മതി ആ എന്നാൽ അത് തരീം അതൊക്കെ വീട്ടിൽ ആ ആയിക്കോട്ടെ